ആ ഞാൻ ഒരു ഫാസ്റ്റ് ട്രാക്കിൻ്റെ വാച്ച് ആമസോണിൽ നിന്നും വാങ്ങിയിരുന്നു അപ്പം അത് വളരെ നല്ലൊരു വാച്ചായിരുന്നു കിട്ടിയത് അതിൻ്റെ പാക്കേജിങ് എല്ലാം വളരെ നല്ലതായിരുന്നു